ഇന്ത്യയിലാദ്യമായി കമ്പ്യൂട്ടർ കൊണ്ടുവന്നത് പിന്നെ ഇന്ദിരാ രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ക കമ്പ്യൂട്ടർ ഇത്രേം ഡെവലപ്പായതും കമ്പ്യൂട്ടർ വ്യാപകമായതും രാജീവ് ഗാന്ധിയുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഏറ്റവും കൂടുതല് ഐ ടി മേഖലകളിലും രാജീവ് ഗാന്ധിയുടെ കാലത്താണുണ്ടായത് പിന്നെ സൂപ്പർ മാർക്കറ്റെന്ന സംഭവം സങ്കല്പം നമ്മുടെ കേരളീയരെന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയത് യൂസഫലി സാറിന് ഹൈപ്പർ മാർക്കറ്റ് വന്നപ്പോഴാണ് നമ്മള് അയാ അതിൻ്റെ സാങ്കേതിക ടെക്നോളജികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഹൈപ്പർ മാർക്കറ്റ് സംസ്കാരത്തിലേക്ക് നമ്മള് പോയതും പിന്നെ ആഗോള നിക്ഷേപവും ആഗോള ആഗോളവൽക്കരണം മൻമോഹൻസിങ്ങിൻ്റെ കാലത്താണ് ആഗോളവൽക്കരണവും ഉദാര ഉദാരവൽക്കരണവുമൊക്കെ നടത്തിയ മൻമോഹൻസിംഗിൻ്റെ കാലത്താണ്